സെൽഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ മെയിനായിട്ട് തൊഴിലാളികള് നടത്തുന്ന തൊഴിലുറപ്പ് അതുപോലെ കുടുംബശ്രീ ഗ്രാമശ്രീ അങ്ങനെയുള്ള പരിപാടികള് അവര് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കില് എന്തെങ്കിലും പാർട്ടികളുടെക്കെ തണലില് ഗ്രൂപ്പുണ്ടാക്കി അവര് സർക്കാരിൻ്റെ പുതിയ രീതിയിലുള്ള തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾക്ക് വേണ്ട സാഹചര്യം ഉണ്ടാക്കി അല്ലെങ്കില് അതിനുള്ള പ്രാവീണ്യം കൊടുത്ത് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ് അതിലുപരി ഇപ്പോൾ സാമ്പത്തികമായിട്ട് ആണ് മെയിൻ പ്രശ്നം അല്ലാതെ ഇപ്പോൾ തൊഴിലിനു വേണ്ടി തൊഴിലിത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടല്ല തൊഴിൽ ചെയ്യാനും തൊഴിൽ കണ്ടെത്താനും പുതിയ പുതിയ പദ്ധതികള് ആവിഷ്ക്കരിക്കുന്നതിനൊക്കെ സാമ്പത്തികമാണ് ആവശ്യം ഈ സാമ്പത്തികത്തിന് സർക്കാറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിട്യൂട്ടിൻ്റെ ഭാഗത്തിൽ നിന്നൊക്കെ ഉള്ള സഹായങ്ങളുണ്ടെങ്കില് സ്ത്രീകള് തൊഴിലിനു വേണ്ടി അവര് തന്നെ സ്വയമായിട്ട് തന്നെ അവർക്ക് അവസരങ്ങള് ഉണ്ടാക്കാം ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോൾ ഗാർമെൻസില് അല്ലങ്കില് മറ്റേ തയ്യലായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ കരകൗശലത്തിലാണെങ്കിലും അതല്ലങ്കിൽ വീട്ടുസാധനങ്ങള് അച്ചാറ് മുതലായ സാധനങ്ങള് ഉണ്ടാക്കണത് അതല്ലങ്കില് വീട്ടിലെ പണികള് അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം അവരുടെ സ്വയമായിട്ട് കണ്ടത്തേണ്ടത് കണ്ടെത്താൻ കഴിയണുണ്ട് പുതിയ പുതിയ മേഖലകളില് കയ്യടക്കാൻ അവര് തയ്യാറുമാണ് പക്ഷേ ഗ്രൂപ്പുകളുടെ സഹായം അത് ഒരു പരിധി വരെ അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ തൊഴില് മുന്നോട്ട് പോകുന്നത് സ്ത്രീകൾക്കുള്ള തൊഴില് എന്ന് പറഞ്ഞാൽ അവര് തന്നെ പോഷിപ്പിക്കാൻ അല്ലെങ്കി അവരെ സപ്പോട്ട് ചെയ്യാൻ ആളുണ്ടാവണം ആ സപ്പോർട്ടെയ്യാനെന്നു പറയണത് സാമ്പത്തികത്തില് ഉള്ളതാവണം അല്ലെങ്കില് അവർക്ക് ചെറിയ ചെറിയ വീഴ്ച്ചകള് വരുമ്പോൾ പോലും അതിന് അവരെ താങ്ങായും വേണ്ട ഗ്രൂപ്പുകളോ അല്ലെങ്കി ആൾക്കാരോ ഇൻസ്റ്റിട്യുഷാൻസോ പാർട്ടികളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഇണ്ടായ മാത്രമേ ആ അവസരങ്ങള് വിനിയോഗിക്കാൻ പാറ്റുളൂ അങ്ങനെയുള്ള സെൽഫ് ഗ്രൂപ്പുകളാണ് വേണ്ടത് അതിപ്പോൽ അവര് കണ്ടെത്തിതാൽ മാത്രം പോരാ അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗതിന്നു അതിനു പറ്റിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഗ്രൂപ്പുകള് ഇണ്ടാക്കണം എന്നിട്ട് അവർക്ക് അതിനുവേണ്ട പ്രചോദനം കൊടുക്കണം അല്ലെങ്കി അതിനു വേണ്ട സഹായങ്ങള് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ അത് വിജയിക്കൂ